നമ്മൾ വളർത്തുന്ന മൃഗങ്ങൾ നമ്മളോട് ചേർന്ന് ജീവിക്കാൻ ഇഷ്ടപ്പെടുന്നവയാണ് നമ്മളുടെ സാമിപ്യം നമ്മളുടെ പാദസ്പർശങ്ങൾ അത് തിരിച്ചറിയുന്നു ഞാൻ അവസാനമായി വളർത്തിയത് പശുവിനെയാണ് ആ പശു എൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ ഒരു പ്രത്യേക ശബ്ദം പുറപ്പെടുവിപ്പിക്കുക പതിവായിരുന്നു പശുവിന് പ്രത്യേകം ആലയം നിർമ്മിച്ചിട്ടുണ്ടായിരുന്നു അതിന് പശുത്തൊഴുത്തെന്നാണ് പറയുന്നത് കേറ്റിൽ ഹോം പശുവിന് ആണെങ്കിൽക്കൂടി അതിനു പേര് നൽകിയിരുന്നു മീനാക്ഷി എന്നായിരുന്നു പശുവിന് പേര് പക്ഷേ ആ പശു കുട്ടിയായിരുന്നപ്പോൾ അതിനെ വാങ്ങി വളർത്തി അതിന് വേണ്ട ആഹാരങ്ങളൊക്കെ കൊടുത്തു അതിന് വാത്സല്യം കൊടുത്തു അതിനെ കുളിപ്പിച്ചു അതിന് മരുന്ന് കൊടുത്തു മരുന്ന് പുരട്ടി അവസാനം പശു പശു ഇണചേരുന്നതിനെ മൃഗാശുപത്രിയിൽ നിന്നും ഡോക്ടറെ കൊണ്ടുവന്ന് കുത്തിവയ്പ്പിക്കുകയാണ് ചെയ്യുന്നത് അത് ചെനയിൽ പിടിച്ചു എന്നാണ് പറയാറുള്ളത് അങ്ങനെ പശു പ്രസവിച്ചു വളരെ വാത്സല്യം ഉള്ള എന്നാൽ നല്ല അനുഭവമാണെനിക്ക് ഉണ്ടായിരുന്നത് പക്ഷെ ഏറെക്കാലം അത് തുടരുവാനായിട്ട് സാധിച്ചില്ല കാരണം അതിനെ മിൽച്ചിങ്ങ് കറവ വളരെ ബുദ്ധിമുട്ടായതിനാൽ കറവക്കാരൻ ഒരു തൊഴിലെന്ന നിലയ്ക്ക് ഇന്ന് നാട്ടിൽ ആൾക്കാരെ ലഭിക്കുക ഏറെ ബുദ്ധിമുട്ടുണ്ടായതിനാൽ പശുവിനെ അവസാനം വിൽക്കാൻ നിർബന്ധിതനാകുകയാണ് ചെയ്തത് ഒരുനേരം കറക്കുമ്പോൾ പത്ത് ലിറ്ററോളം പാല് കിട്ടിക്കൊണ്ടിരുന്ന ജേഴ്സി പശുവാണെനിക്ക് ഉണ്ടായിരുന്നത് പശുവിനോട് ചേർന്നിരിക്കുമ്പം നമുക്ക് കിട്ടുന്ന ആ സന്തോഷം ഏറെയാണ് തന്നെയുമല്ല നമുക്കൊരുപാട് ആത്മവിശ്വാസവും അത് നൽകുന്നു ഒരു പശുവളർത്തുക എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മുടെ ദേശത്തേയും സംസ്കാരത്തേയും നമ്മുടെ മുൻതലമുറക്കാരയൊക്കെ ഏറെ നമുക്ക് ബഹുമാനത്തോടുകൂടി കാണാൻ സാധിക്കുന്ന ഒരു അവസ്ഥയിലൂടെയാണ് കടന്നുപോകുന്നത് ശാരീരികമായി ഏറെ ക്ലേശങ്ങൾ അനുഭവിക്കേണ്ട ജോലിയാണെങ്കിൽക്കൂടി അതൊരാനാന്ദത്തോടുകൂടി നമ്മളെ കുട്ടികളെ പരിപാലിക്കുന്ന രീതിയിൽ തന്നെ അവരെ കാണുകയാണെങ്കിൽ അത് ഒരു വലിയ നന്മമരം തന്നെയായിരിക്കും ഒരിക്കലും നമുക്കതിനെ വിട്ടുപിരിയുവാനുള്ള ഒരു മാനസ്സികാവസ്ഥ നമ്മുടെ നമ്മളെ ഒരിക്കലും അപഹരിക്കുകയില്ലായെന്നുള്ള ഒരു സത്യമാണ് ഇന്ന് സമൂഹത്തിൽ ന്യൂക്ലിയർ അണുകുടുംബങ്ങളായി വീടുകൾ മാറിയ പശ്ചാത്തലത്തിൽ വീട്ടിലാവശ്യമായ പുല്ല് തോട്ടവും മറ്റ് പശുവിനൊക്കെ കൊടുക്കുവാൻ പറ്റിയ ആഹാരം വളർത്തുവാനുള്ള സാഹചര്യം ഇല്ലാത്ത പശ്ചാത്തലവും ഒക്കെ നിമിത്തം പശു വളർത്തലേറെ പ്രതിസന്ധികളിൽ കൂടിയാണ് കടന്നുപോകുന്നത് ഉള്ള ആൾക്കാർ തന്നെ പശുക്കളെ വിൽക്കുന്ന ഒരവസ്ഥയാണ് കണ്ടുവരുന്നത് ഇതിൽനിന്നും നിലവിലുള്ള തലമുറയെ പ്രോത്സാഹിപ്പിക്കാനായിട്ട് ഗവൺമെന്റിനേറെ കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് സാധിക്കും ഗവൺമെന്റ് നല്ല ഇനം പശുക്കളെ സൗജന്യമായി നൽകുക സബ്സിഡിയോടുകൂടി പശുവിൻ്റെ പോഷക ആഹാരങ്ങൾ നൽകുക ആരോഗ്യപരിപാലനം നടത്തുക ഈ മേഖലകളിലൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇപ്പോഴും നിലവിലുള്ള തലമുറയിലുള്ള ആൾക്കാരിലും പശുവളർത്തുന്നതിനുള്ള താൽപര്യം നമുക്ക് പ്രോത്സാ പ്രാവർത്തികമാക്കുവാനും അതുവഴി പശു വിഭവങ്ങൾ നമുക്ക് നമ്മുടെ വരുമാനസ്രോതസ്സ് കുടുംബങ്ങളുടെ വരുമാനസ്രോതസ്സിൽ നിർണ്ണായകമാക്കുവാനും സാധിക്കും എന്നുള്ളത് തീർച്ച അങ്ങനെ വരികയാണെങ്കിൽ പുതിയതലമുറയ്ക്കും അത് ഏറെ പ്രോത്സാഹനജനമായിരിക്കും സന്തോഷകരമായിരിക്കും ആരോഗ്യകരമായിരിക്കും അവർക്ക് അനുകരിക്കുവാനും ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റുവാനും ആരോഗ്യകരമായ ഒരു ജീവിതം നയിക്കുവാനും ഏറെ സഹായിക്കും എന്നത് തീർച്ച